ഇപ്പോൾ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് ആയോധനകലകളൊക്കെയുണ്ട് അതില് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു ആയോധനകലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കളരി തന്നെയാണ് അപ്പോൾ കളരിയിലെന്ന് പറയുമ്പോൾ ആൾക്കാര് ഒരുപാട് പേര് എന്താ പറയുക പയറ്റി തെളിഞ്ഞോര് ഇതുതന്നെയാണ് കളരി അപ്പോ കളരി പഠിക്കാനായിട്ട് ഇന്നും പണ്ട് മുതലും ആളുകള് ഇന്ന് വരെയും എന്താ പറയുക ആളുകൾ അതിന് വേണ്ടി തന്നെ നടക്കുന്നുണ്ട് പിന്നെ നോർമലി പറയുകയാണെങ്കിൽ കളരിക്കൊക്കെ ഇന്നും അത്യാവശ്യം നല്ല പ്രചാരം ലഭിക്കുന്ന ഒരു ഇത് തന്നെയാണ് ഏകദേശം കളരി പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടുതന്നെ ഇന്നും കളരിക്ക് നല്ലൊരു ഇത് തന്നെയാണ് കാര്യം പണ്ട് കാലത്തുള്ള രാജാക്കന്മാര് പഠിച്ച് വന്നിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതുമായ ഒരു ആയോധനകല തന്നെയാണ് കളരി

ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയതോടുകൂടി എല്ലാവരും തന്നെ ആയോധനകലകളും അത്തരത്തിലുള്ളതൊക്കെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്നാണ് എന്റെ ഒരഭിപ്രായം